എനിക്ക് ഈ ചെടിയൊക്കെ വളർത്തുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ എനിക്ക് ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ നല്ല സംതൃപ്തി വരാറുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കുറെ അധികം ചെടികളുണ്ട് വിവിധ തരം റോസകളും ചെമ്പരത്തിയും എല്ലാമുണ്ട് ഇല ചെടികളും എല്ലാമുണ്ട് അപ്പം ഇതുപോലെ എൻ്റെ ചെടീടെ സൗന്ദര്യമൊക്കെ കണ്ട് ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഒക്കെ കണ്ടിട്ട് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആ തൊട്ടടുത്ത വീട്ടിലെ ആൻറി എന്നോട് ചോദിച്ചു ആ മോളെ നിങ്ങളുടെ വീട്ടിൽ എന്തു മാത്രം ചെടികളാണ് ഉള്ളത് എന്നേം കൂടെ ഒന്ന് സഹായിക്കാമോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ആൻറി ഞാൻ എന്താ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാലോന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ അവരുടെ വീട്ടിൽ ഒരു ചെറിയ വീടിന്റെ ഒരു സൈഡിലായിട്ടൊരു ഒരു ചെറിയ ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ കയ്യിലുള്ള റോസാ കമ്പുകളും ചെമ്പരത്തിടെ കമ്പുകളും അതുപോലെ ഓരോ വിത്തുകളും ഒക്കെ നൽകി ആ ആൻറിയെ സഹായിച്ചു ഞങ്ങൾ രണ്ടു പേരും കൂടെ അവിടെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുക്കി എടുത്തു പിന്നെ ഞാൻ ആ പിന്നെ ആ ചേച്ചിക്ക് കുറച്ച് പൊടികൈകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ചാണകപൊടി എല്ലുപൊടിയൊക്കെ കൂട്ടി ഇടുമ്പോഴ്ത്തേക്ക് അത് പൂ ഉണ്ടാകാനൊക്കെയായിട്ട് ചെടികൾക്ക് നല്ലൊരു വളമാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച മുട്ട തോടുകൾ അതൊക്കെ പൊടിച്ച് ഇടുന്നത് റോസക്കൊക്കെ പൂവ് ഉണ്ടാകാനായിട്ടക്കെ വളരെ നല്ലതാണ് പിന്നെ ഉപയോഗിച്ച് ചായേടെ മിച്ചം വരുന്ന ചായ പിണ്ടി അതൊക്കെ നമുക്ക് വളമായിട്ട് ഇടാൻ പറ്റും അപ്പം ജൈവ വളമൊക്കെ വളരെ നല്ലതാന്ന് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ആ ചേച്ചി അത് എൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആ ചേച്ചി അതിന് വളമൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ രണ്ടു പേരൂടെ അത് ഒരുക്കിയെടുത്തു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വളരെ നല്ലൊരു മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ അവിടെ വന്നു അപ്പം അത് എല്ലാവരും ചോദിക്കാറുണ്ട് ആ നല്ല രസം ഉണ്ടല്ലോ അപ്പം നിങ്ങൾ രണ്ടു വീടുകളും അടുത്തടുത്താണെങ്കിൽ കൂ രണ്ടു വീടുകളിലും നല്ല പൂന്തോട്ടം ആണല്ലോ എന്നൊക്കെ അതുപോലെ തന്നെ ആ ചേച്ചിക്ക് ഇപ്പം ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ചെടിയുടെ വിത്തുകളോ തൈകളോ ഒക്കെ ലഭിച്ചാൽ ആ ചേച്ചി അത് എനിക്കും തരാറുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടുമിങ്ങോട്ടും കൊടുത്തും ഒക്കെയായിട്ട് അങ്ങനെ രണ്ടു വീടുകളിലും വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ ഞങ്ങൾ ഒരുക്കി എടുത്തിട്ടുണ്ട്